എൻ്റെ ജീവിതത്തിൽ എന്തൊരു മംഗളകരമായ സംഭവം തൊടങ്ങുന്നതിന് മുന്നെയും ഞാനാദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് വെളിച്ചെണ്ണ കത്തിക്കാന്നുള്ളതാണ് ദൈവത്തിന് ക്ഷേത്രത്തിൽ പോയി വെളിച്ചെണ്ണ കത്തിച്ച് അതിന് ശേഷം അച്ഛൻ്റെ യും അമ്മേൻ്റെയും ആ ഇത് അനുഗ്രഹം വാങ്ങി അതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം തുടങ്ങുന്നത് അത് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്കതിനൊരു സാഫലീകരണമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ഞാൻ ദൈവത്തിന് വെളിച്ചെണ്ണ കത്തിക്കാറുണ്ട് അത് എൻ്റെ മനസ്സിൻ്റെ ആ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ത് മംഗളകരമായ കാര്യം തുടങ്ങുമ്പോഴും അത് എനിക്ക് നേടി കഴിഞ്ഞാലും ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനമ്മ അവരുടെ ആ ഒരനുഗ്രഹം എനിക്കെപ്പോഴും ഉണ്ടാകും പിന്നെ ഞാൻ ചെയ്യുന്ന ഈ ഒരു ഞാനെടുക്കുന്ന ഒരു ഏതൊരു കാര്യത്തിനും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നമുക്ക് മംഗളകരമായിട്ട് തന്നെയാണ് അവസാനിക്കുന്നത് അപ്പം നമ്മൾ എല്ലാം നമ്മൾ വയ്യോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളതിന്റെതായ രീതിയിൽ നമ്മൾ ഒരു കാര്യപോക്കിനു നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മംഗളമായി തീരൂന്നുള്ള ഒരു ഇതിൽ തന്നെ നമ്മൾ തുടങ്ങണം അങ്ങനെയാണെങ്കിൽ മാത്രം എന്തായാലും മംഗളമായിട്ട് ഭവിക്കുകതന്നെ ചെയ്യും അപ്പോൾ എൻ്റെ ഇത് ഇങ്ങനെയാണ്